ആ മാഡം മേ ഐ കമിൻ എനിക്കൊരു ഇൻഷുറൻസ് പുതിയ ഏതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ എനിക്ക് ഒരു ഇൻഷുറൻസ് കൂടണമായിരുന്നേ അതെ അല്ലെ അപ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിന് ചേരാൻ അങ്ങനെ എന്തെങ്കിലും ഏജ് ലിമിറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരുവോ

മൂന്ന് വർഷം നമ്മൾ അടവ് അടവടക്കണമെന്നോ

ഓക്കേ അപ്പോൾ നമ്മള് മൂന്ന് വർഷം കണ്ടിനോസ് ആയിട്ട് അടക്കണം മാസം മാസം ആണോ ഓക്കേ മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ അടച്ചോണ്ടിരിക്കണം അത് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് മൂവായിരം രൂപ മൂന്ന് വർഷത്തേക്ക് അല്ലെ ഓക്കേ ഓക്കേ കാലാവധി എന്ന് പറയുമ്പോൾ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അല്ലെ

ഓക്കേ ആ ഇപ്പോൾ ഈ പതിനഞ്ചില് ലക്ഷമെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒറ്റയടിക്ക് അക്കൗണ്ട്ക്ക് ഇടുവോ അതോ നമുക്ക് പെൻഷൻ പോലെയാണോ കിട്ടുവ കയ്യില് പത്തു ദിവസം കൊണ്ട് നമുക്ക് കേറും അല്ലെ ഈ പതിനഞ്ച് ലക്ഷമല്ലെ നമുക്ക് ഇപ്പോൾ ഈ മൂന്ന് മാസം കൂടുമ്പോൾ ഈ മൂവായിരം ആണല്ലോ അടക്കാൻ പറഞ്ഞത് ഓക്കേ അപ്പോൾ ഈ മൂന്ന് വർഷം മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ഈ അടവ് ഏതെങ്കിലും തെറ്റുവേ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സ് ആകുവോ അങ്ങനെ എന്തെങ്കിലും ആയിന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും പിന്നെ അത് പുതുക്കാനോ ഓക്കേ മെഡിക്കൽ അല്ലെ ഓക്കേ അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഇപ്പോൾ മുടങ്ങിയതാണെങ്കിലും നമുക്ക് അത് പുതുക്കി കൊണ്ട് പോവാം അല്ലെ

ഓക്കേ നമുക്ക് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ അടവ് തെറ്റി പറഞ്ഞാൽ ആ മൂന്ന് മാസത്തെ പൈസയും അതിന്റെ ഒരു ഇൻ്റർസ്റ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വന്നോ പറഞ്ഞാൽ നമുക്ക് ഇത് പുതുക്കാം അല്ലെ ഓക്കേ അപ്പോൾ നമുക്ക് ഈ ഇതിപ്പോൾ എടുക്കാനോ ഇത് ജോയിൻ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് ഓക്കേ പി ഓക്കേ പിന്നെ പാൻ കാർഡും മറ്റ് ബാങ്ക് പാസ്സ്ബുക്ക് അതെന്തെങ്കിലും വേണോ ഓക്കേ അത് അത് നമ്മളിപ്പോൾ ഫസ്റ്റ് ചേരുമ്പോഴും മൂവായിരം അടക്കണോ അതോ ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ ഓക്കേ അത് അടച്ചിട്ട് ചേരണമല്ലെ പിന്നെ മാസം മാസം മൂവായിരം വെച്ച് മൂന്ന് മാസം കൂടുമ്പോൾ അടക്കണം അല്ലെ ഓക്കേ ഇതിൻ്റെയൊക്കെ കോപ്പി ഇപ്പോൾ തരണോ തന്നിട്ട് പോയാൽ നമുക്ക് ഇപ്പോൾ എപ്പോഴേക്ക് ഇത് ശരിയാക്കും

ഓക്കേ ശരി അപ്പോൾ ഞാനിപ്പോൾ നാളെ ഈ കോപ്പി പൈസയും ആയിട്ടൊക്കെ വരാം അപ്പോൾ നാളെ ശെരിയാക്കി തന്നാൽ മതി ഓക്കേ ഓക്കേ ശരി താങ്ക്യു